സവാരിക്കായി ഒരു കുതിരയെ തെരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ കുതിര നല്ല പോലെ ട്രൈൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന കമാൻ്റുകളൊന്നും ആ കുതിര നല്ല പോലെ ചെയ്തെന്നു വരില്ല പലരും വിചാരിക്കുന്നത് ഈ സിനിമകളും അല്ലെങ്കിൽ ഫാൻസി ബുക്കുകളും ഒക്കെ പുസ്തകങ്ങളുമൊക്കെ വായിച്ച് അവർ വിചാരിച്ചിരിക്കുന്നത് സവാരിക്കായിട്ട് വെള്ളക്കുതിര വളരെ നല്ലതാണ് സവാരിക്കായി വെള്ളക്കുതിര വളരേ മനോഹരമായിരിക്കും കാരണം രാജ്കുമാരൻ വെള്ളക്കുതിരയുടെ മേൽ വന്ന് രാജകുമാരിയെ രക്ഷിക്കുന്ന കഥകളൊക്കെ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാര്യം വളരേ തെറ്റായ ഒരു ധാരണയാണ് കാരണം എന്താണെന്ന് വച്ചാൽ വെള്ളക്കുതിര എന്ന് പറയണത് സവാരിക്ക് വേണ്ടി പ്രത്യേകിച്ച് കോമ്പിറ്റേറ്റീവ് മത്സരങ്ങളിലും സവാരിക്ക് വേണ്ടി വളരെ അധികം അനുയോജ്യം അല്ലാത്ത ഒരു കുതിര വർഗമാണ് വെള്ള കുതിര നമ്മൾ ഭംഗി മാത്രം നോക്കിയിട്ട് സവാരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു വളരേ പൊട്ടത്തരമാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ കൂടുതലായും സവാരിക്കായി ഞാൻ ഉപയോഗിക്കുന്ന കുതിരകൾ എന്ന് പറയുന്നത് അതിന് കളറിൻ്റെ വ്യത്യാസങ്ങളൊന്നും നോക്കാറില്ല ഹൈറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നു എന്ന് വരാം സവാരി ചെയ്യുന്നതിൻ്റെ രീതിക്ക് വ്യത്യാസം വന്നൂ എന്ന് വരാം പക്ഷേ അങ്ങനെയല്ലാതെ കളർ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി സവാരി ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ അത്രയും ഉപകരപ്രദമായിരിക്കില്ല